പാലക്കാട് എന്ന് പറയുന്നത് ഒരു വശം മലകളും കാടുകളുമാണ് ഇവിടെ ജല സ്രോതസ് വളരെ കുറവാണ് എന്നാലും ഇവിടുത്തെ മാലിന്യ സ്രോതസ് വാ വളരെ അധികം കൂടുതലാണ് ഓരോ വർഷം തോറും ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഇവിടെ നല്ല രീതിയിൽ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്രോതസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ നോട്ടത്തിൽ അറിയുന്നത് ഇവിടെ ഓരോ സ്ഥലത്തും ച മാലിന്യത്തിനായിട്ടുള്ള ചവിട്ടു കൊട്ടകൾ ഇല്ല ഇതിലൂടെ മാലിന്യം വലിച്ച് എറിയുന്നത് വളരെ അധികമാണ് ഇവിടെ അല്ലാണ്ട് വാഹന മാലിന്യവും വളരെ കൂടുതലാണ് ഓരോ വർഷവും വളരെ അധികം വാഹന പുകകളാണ് ഇതിലൂടെ ഈ നാട്ടിൽ തള്ളി വിടുന്നത് അതിലൂടെ വാഹനം മാലിന്യവും വർഷം വർഷം അതിൻ്റെ സ്രോതസ് കൂടി വരുന്നുണ്ട് അല്ല അല്ലാണ്ട് ഇവിടുത്തെ കുന്നുകൾ എല്ലാം കുന്നുകളും കാടുകളും വളരെ അധികമാണ് ഇതിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ ഇവിടെ അതിലൂടെ പ്ലാസ്റ്റിക് വലിച്ച് എറിയുന്നതിൽ കൂടിയും വളരെ അധികം മാലിന്യം വർദ്ധിക്കുന്നുണ്ട്